ചിത്രം വരയില് നമ്മളിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതല് വെല്ലുവിളി നേരിടുന്നത് കുറിച്ച് പറയാം ഇപ്പം ഒരു ഹ്യൂമൻ്റെ ഹൈ ഹ്യൂമൻസ് അതിലെ മനുഷ്യനെ വരയ്ക്കണമെങ്കിൽ നമ്മൾക്ക് അത് കറക്റ്റ് അത്രയ്ക്ക് റിയലിസ്റ്റിക്കായിട്ട് വരക്കണമെങ്കില് നമുക്ക് കയ്യും കാര്യങ്ങളൊക്കെ അതേപോലെ കറക്റ്റ് നല്ല മൂമ്മെൻ്റും കാര്യങ്ങളും വേണം അതേപോലെ നമ്മള് പെൻസില് പിടിക്കുന്നതിനൊക്കെ ഒരു വശമുണ്ട് ആ പെൻസില് പിടിക്കുന്നതൊക്കെ കറക്റ്റ് പ്രോപ്പറായ രീതിയിലൊക്കെ പിടിച്ചാൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ഒരു അത് ചിത്രം കറക്റ്റ് നമുക്ക് അതിന് നമ്മള് ഉദ്ദേശിക്കുന്ന ഒരിത് ഒരാശയവും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കരുതുന്നതും മനസ്സിലാക്കുന്നതും അപ്പം നമ്മള് ഈ ഷേഡ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് കറക്റ്റ് രീതിക്ക് പെൻസില് പിടിച്ചിട്ട് ചെയ്തിട്ടില്ല അതേപോലെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള പെൻസിലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ലെൽ നമുക്ക് ആ ചിത്രത്തിന് കറക്റ്റ് റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും ഇപ്പം അങ്ങനെ നമ്മള് പരമാവധി നമ്മള് മിസ്റ്റേക്ക് നമ്മള് ആക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് ചോദിക്കുക നമുക്കിപ്പം നമുക്കൊരു ക്ലാസോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് നമ്മൾ ജസ്റ്റ് ആസ്ക് അവരോട് ചോദിക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുവോ അതിന് എന്തോര് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടേൽ ക്ലിയർ ചെയ്യുക അതുപോലെ പെൻസില് യൂസ് ചെയ്യുക നല്ല ഷേഡ് ഉള്ള പെൻസില് യൂസ് ചെയ്യുക നല്ല എച്ച് ബി നല്ല ഡാർക്കായിട്ടുള്ള പെൻസിൽ കാര്യങ്ങള് യൂസ് ചെയ്യുക റബ്ബർ യൂസ് ചെയ്യാ നമ്മള് എത്രത്തോളം നമ്മള് ശ്രദ്ധ കോൺസൻട്രേറ്റ് ചെയ്തൊരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക അത് നമുക്ക്അത്രത്തേക്കും നല്ല നല്ല റിസൽട്ടായിരിക്കും ആ ചിത്രത്തിൽ നിന്ന് കിട്ടുക നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്